നമുക്ക് തിരുവനന്തപുരം ഇവിടെ തന്നെ നമുക്കൊരു സ്റ്റേഡിയമുണ്ട് പി എം ജി യിലെ ജി വി രാജ സ്റ്റേഡിയം എന്നാണ് അവിടെ ഓരോ വർഷവും ഓരോ കായിക

മത്സരങ്ങൾ നടക്കാറുണ്ട് അവിടെ ലോങ് ജംപ് ഹൈ ജംപ് റിലേ ഹൻഡ്രഡ് മീറ്റർ ടു ഹൻഡ്രഡ് ത്രീ ഹൻഡ്രഡ് ഫോർ ഹൻഡ്രഡ് പിന്നെ സ്ലോ ആർക്ക് ഷോട്ട്പുട്ട് ജാവലിൻ ഡിസ്ക് ത്രോ അങ്ങനെ ഒരുപാട് കായി കായികങ്ങൾ നടക്കാറുണ്ട് അവിടെ അവിടെ അവിടെ പങ്കെടുക്കാൻ പ്രായ പരിധിയൊന്നുമില്ല എല്ലാവർക്കും പങ്കെടുക്കാം

അവിടെ അവിടെ കലാപരിപാടി അങ്ങനെ വർഷ ഓരോ വർഷവും ഓരോ പേരു വരും ഈ കായികം കൊണ്ടു തന്നെ ഓരോരുത്തരും ജീവിതത്തിൽ വിജയിച്ച ഓരോരുത്തരും അവർ അവിടെ വരുന്നുണ്ട് അത്കൊണ്ട് അവര് ഇങ്ങനെ വന്ന് ചീഫ് ഗസ്റ്റായിട്ട് വന്ന് ഓരോരുത്തരും അവരെ സമീപിക്കാറുണ്ട് അത് അവിടെ ആ പരിപാടികൾ കാണാൻ തന്നെ ഒരുപാട് ജനങ്ങൾ എത്തുന്നുണ്ട് പല നാട്ടിൽ നിന്നും പല സ്ഥലത്തു നിന്നും വരുന്നത് കൊണ്ട് അവിടെ അത് കാണുവാൻ എല്ലാ വർഷവും ഓരോരുത്തരും വരുന്നുണ്ട് ഞാനും അവിടെ അവിടെ ഒരു ഒരു വർഷം മൂന്ന് വർഷം കൊണ്ട് ഞാനും അവിടെയൊരു പങ്കാളിയാണ്

അവിടെ വരുന്ന ഒരു ഒരുപാട് ഒരുപാട് ആൾക്കാര് വരുന്നുണ്ട് ആ പരിപാടികൾ കാണാൻ ഏറ്റവും കൂടുതൽ കാണാന് കാണുന്നത് ഷോട്ട്പുട്ടും ലോങ്ജംപും ഫോർ ഹൻഡ്രഡ് മീറ്റർ റെയ്സുമാണ് ഏറ്റവും കൂടുതൽ അവിടെ ആളുകൾ കാണാൻ വേണ്ടി വരുന്നത് അത്ര മാത്രം ജനകൂട്ടങ്ങളാണ് ജിവി രാജ സ്റ്റേഡിയം തിരുവനന്തപുരത്തും എല്ലാവരും എത്തുന്നത് വളരെ രസകരമാണ് എല്ലാവർക്കും കണ്ടു നിൽക്കാനും നമുക്ക് അറിയുന്ന എല്ലാ പ്രശ പ്രശസ്തമായ ആൾക്കാരുമാണവിടെ പങ്കെടുക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും പ്രിയങ്കരനുമായ എല്ലാ ഐ എം വിജയൻ അങ്ങനത്തെ ഒരുപാട് കായിക അവിടെ ആ സ്റ്റേഡിയത്തിൽ കളി കളിച്ചിട്ടുണ്ട്

ഇനി അതേ പോലെ ഇനി വലിയ വലിയ സ്റ്റേറ്റ് അങ്ങനത്തെ ടൂർണമെൻറ്റൊക്കെ ഇവിടെയാണ് നടക്കുന്നത് എല്ലാവരും കാണുകയാണ്